ഒറ്റ ദിവസം കൊണ്ട് ധൈർഘ്യമേറിയ യാത്ര നടത്തിയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഒരു ദിവസം കട്ടപ്പനക്കപ്പുറം കാഞ്ചാറ് വരെ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ചെറുപ്പത്തിൽ അത് വളരെ അന്ന് റോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എൻ്റെ ചെറുപ്പകാലത്തായിരുന്നു ഒരു രാവിലെ ഒരു എട്ട് മണി ആയപ്പം ഞാനിവിടുന്ന് നടക്കാൻ തുടങ്ങി വളരെ ദുർഘടം പിടിച്ച പാതയാണ് മഴക്കാലമായിരുന്നു കോരിച്ചൊരിയുന്ന മഴ തോടും ആറുമെല്ലാം നിറഞ്ഞ് അന്ന് ഇതുപോലെ പാലങ്ങളോ തോടുകളോ പിന്നെ റോഡുകളോ ഒന്നുമില്ല പല തും ആറുകളും തോടുകളും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് കടന്ന് പോയത് ഒത്തിരി ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ നടന്നും ക്ഷീണിച്ചും ഒന്നൊന്നര മണിക്കൂറ് ഒരു മണിക്കൂറ് കൊണ്ട് അവിടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വിശ്രമിച്ചു അവിടുന്ന് വീണ്ടും നടന്നു ഒരു ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് വീണ്ടും നടക്കും അങ്ങനെ നടന്ന് ഒരു ഏതാണ്ട് നല്ലൊരു ഭാഗം അതായത് ഒരു ദിവസം നടന്നിട്ടുണ്ട് മലകളും കുന്നുകളും എല്ലാം കയറി ഇറങ്ങിയാണ് നടക്കുന്നത് വഴികളിലെല്ലാം ഒരു മനുഷ്യൻ പോലും ഇല്ല വിജനമായ വഴിയാണ് മഴയും കാറ്റും വെള്ളപ്പൊക്കം ഒക്കെയായിരുന്നു എന്നാലും ഒരു രീതിയിലും നടന്ന് പോവാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിരുന്നെങ്കിൽ പോലും വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ വളരെ ഹൈക്ക് ആയിട്ട് നടന്ന് ലക്ഷ്യസാനത്തെത്തി എത്തുന്നതിന് മുമ്പെ വളരെ ഒത്തിരി പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായി അതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ തരണം ചെയ്ത് പോയി ആണ്ടൊരു ഒന്നൊന്നര രണ്ട് മണിക്കൂറ് നാല് മണിക്കൂറോളം എടുത്തു ഞാൻ ഇവിടുന്ന് അവിടെ നടന്ന് ചെല്ലാൻ കട്ടപ്പന ടൗണിൽ ചെന്ന് അവിടുന്ന് ചായ കുടിച്ചു അങ്ങനെ വീണ്ടും അവിടുന്ന് നടന്നു ഒരു ഒന്നര കട്ടപ്പനയിൽനിന്നും നടന്നാൽ പോലും ഒരു ഒരു മണിക്കൂറോളം വീണ്ടും വേണം ഈ കാഞ്ചാറ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്താൻ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഞാൻ അവിടെ ചെന്നത് അത് വളരെ ദൈർഘ്യമേറിയ ഒരു യാത്രയായിരുന്നു വീട്ടിൽ പല ഇടത്തും പല രീതിൽ യാത്ര പോയിട്ടുണ്ട് ഒത്തിരി പ്രദേശങ്ങളിൽ കൂടെ എല്ലാം നടന്നിട്ടുണ്ട് ചെറുപ്പ ഒറ്റയ്ക്കൊക്കെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്ഘടമാണ് ദുഷ്കരവാണ് വളരെ നല്ല ഒരു യാത്രയായിരുന്നു അത് അതിനെക്കുറിച്ച് നല്ലൊരു അനുഭവമുണ്ട് ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളുണ്ടായിരുന്നു കാറ്റും മഴയും ഒക്കെ ഉള്ള സമയത്ത് ഒറ്റക്ക് ഒരു ആൾ ഈ വനം പോലുള്ള പ്രദേശത്തുകൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു യാത്രയാണ് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഞാനത് അത് പൂർത്തിയാക്കി പിറ്റേ ദിവസം അവിടുന്ന് തിരിച്ച് നടന്നു പിറ്റേ ദിവസവും തിരിച്ച് തന്നെയാണ് നടന്ന് പോന്നത് അത് ഈ പറഞ്ഞാ രീതിയിൽ തന്നെ വളരെ ബുദ്ധിമുട്ടി തന്നെ മഴയും കാറ്റും എല്ലാ ഉണ്ടായിരുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ പിറ്റേ ദിവസം നടന്നെത്തി എന്തായാലും അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ദൈർഘ്യമേറിയ ഒരു യാത്രയായിരുന്നു അത് ജീവിതത്തിൽ പല യാത്രകളും ഇങ്ങനെ പോയിട്ടുണ്ട് എല്ലാം വളരെ നല്ല അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ ആ യാത്ര ദൈർഘ്യമേറിയ ഒരു യാത്രയായിരുന്നെങ്കിലും അത് ഞാൻ പൂർത്തിയാക്കി